ഹലോ ഗുഡ് ഈവനിംഗ് ചിക്കാഗോയിൽ നിന്ന് ഡാളസിലേക്കുള്ള വിമാനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ വിളിക്കുകയാണ് ദയവായി എന്നെ സഹായിക്കാമോ എനിക്ക് ഇന്ന് ചിക്കാഗോയിൽ നിന്ന് ഡാളസിലേക്ക് യാത്ര ചെയ്യണം എൻ്റെ ഓപ്ഷനുകൾ എന്തൊക്കെയാണ് ഈ തീയ്യതികളിൽ ചിക്കാഗോയിൽ നിന്ന് ഡാളസിലേക്ക് ഏതെങ്കിലും ഫ്ലൈറ്റുകൾ ലഭ്യമാണോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാമോ പുറപ്പെടൽ എത്തിച്ചേരൽ സമയങ്ങൾ ടെർമിനൽ വിവരങ്ങൾ ഫ്ലൈറ്റ് ധൈർഖ്യം എന്നിവ ഉൾപ്പെടെയുള്ള ഫ്ലൈറ്റ് വിശദാംശങ്ങൾ ദയവായി എനിക്ക് നൽകാമോ ചിക്കാഗോയിൽ നിന്ന് ഡാളസിലേക്ക് വൈകുന്നേരം ആറ് നാല്പത്തഞ്ചിന് പുറപ്പെടുന്ന സമയത്ത് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബുക്കിംഗിൽ എന്നെ സഹായിക്കാമോ ഈ ഫ്ലൈറ്റിൽ ബാഗേജ് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകളേയും ഫീസുകളേയും കുറിച്ച് ദയവായി എന്നെ അറിയിക്കാമോ ഓക്കെ താങ്ക് യു